ഫോട്ടോഗ്രാഫിയില് ഒരു പരിശീലനവും ലഭിക്കാത്ത ഒരാളാണ് ഞാന് ഫോട്ടോഗ്രാഫിയില് വലിയ താല്പര്യവും പണ്ടുകാലത്ത് എനിക്കുണ്ടായിട്ടില്ല എന്നാല് നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി കയ്യിൽ അല്ലെങ്കിൽ ഒരു ക്ലിക്കിൽ തന്നെ ഫോട്ടോ കിട്ടുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ ഫോട്ടോഗ്രാഫിയില് അൽപ്പമൊക്കെ താല്പര്യം കാണിക്കുവാന് എനിക്ക് സാധിച്ചിട്ടുണ്ട് കാണുന്നതെല്ലാം ഫോട്ടോയെടുക്കുന്ന ഒരു പുതിയ ട്രെൻഡിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല എന്നാല് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മുടെയും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയും ഫോട്ടോ എടുക്കാനും അത് കയ്യില് സൂക്ഷിക്കാനും സാധിക്കുന്നുവെന്നുള്ളത് വളരെ പ്രയോജനപ്രദമായ കാര്യവുമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മൊബൈൽ ഫോണ് വഴി വിവിധ ഫോട്ടോകളെടുത്ത് അതിൻ്റെ ക്ലാരിറ്റിയും മറ്റേ മനോഹാരിതയുമൊക്കെ മനസ്സിലാക്കി ഫോട്ടോഗ്രാഫി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് സ്വയം പരിശ്രമിച്ചുവെന്നത് തന്നെയാണ്